ആളുകൾ പട്ടണത്തിൽ ജീവിക്കാൻ താൽപര്യപ്പെടുന്നത് കൊണ്ട് അല്ല യുവതലമുറയ്ക്ക് അനുയോജ്യമായ പങ്കാളികളെ കിട്ടാത്തത് പങ്കാളികളെ കിട്ടാത്തതിൻ്റെ കാരണം അവർ അവരുടെ പങ്കാളികൾക്ക് ഗവൺമെമെൻ്റ് ജോലി വേണം അവർ വലിയ നിലയിൽ എത്തണം എന്നുള്ള ഒരു കുറേ ഒരു കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ടാണ് ഒന്നാമത് ജീവിതപങ്കാളികളെ കിട്ടാൻ ബുദ്ധിമുട്ട് വളരെ അധികം ബുദ്ധിമുട്ടാണ് ജീവിതപങ്കാളികളെ കിട്ടാൻ പിന്നെ പട്ടണത്തിലേക്ക് ജീവിതം മാറ്റുന്നതിന് ഒരു കാരണമായി തീരാൻ കാരണം പട്ടണത്തിലേക്ക് എല്ലാവരും മാറുവാണെങ്കിൽ പൊതുവേ നാട്ടിൽ താമസിക്കുന്ന നാട്ടിലുള്ള ആളുകൾക്ക് പങ്കാളിയെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവിടെ വേറെ മതം ജാതി അങ്ങനെയൊക്കെ നോക്കി ഒന്നാമത് ജീവിതപങ്കാളികളെ കിട്ടാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇപ്പോൾ പട്ടണത്തിലേക്ക് ആളുകൾ മാറുവാണെങ്കിൽ ഭയങ്കര അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം ഉള്ളവർ എല്ലാവരും പോവുകയാണെങ്കിൽ പിന്നെ നാട്ടിലുള്ള ആർക്കും പെണ്ണ് കിട്ടില്ലല്ലോ അങ്ങനെ അല്ല ജീവിതപങ്കാളികളെ ലഭിക്കില്ലല്ലോ പൊതുവേ അങ്ങനെയാണ് ജീവിതപങ്കാളികളെ ലഭിക്കൽ കുറച്ചു ബുദ്ധിമുട്ടായ കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജീവിതപങ്കാളിയെ കിട്ടൽ അതിന് ഇടയ്ക്ക് പട്ടണത്തിലേക്കും കൂടെ പോവുകയാണെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം എല്ലാവരും അങ്ങോട്ട് പോവാണെങ്കിൽ പിന്നെ നാട്ടിലുള്ളവർക്ക് കിട്ടില്ലല്ലോ